അ ഹലോ ഞാനാ നേരത്തെ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളിപ്പോൾ എവിടെ എത്തിയെന്ന് ഒന്ന് പറയാമോ ആ ഓക്കെ ഓക്കെ എന്നാൽ നിങ്ങൾ അവിടെ നിന്ന് സ്ട്രൈറ്റ് വന്നിട്ട് ഫസ്റ്റ് ലെഫ്റ്റ് എടുത്താൽ നടക്കാവ് എത്തും നടക്കാവിൽ നിന്ന് നേരെ സ്ട്രൈറ്റ് റോഡ് അതായത് വടകര റോഡ് കൊയിലാണ്ടി റോഡ് നേരെ വന്നാൽ എസ് സ്റ്റീൽ എസ് സ്റ്റീൽ എത്തും എസ് സ്റ്റീൽ നേരെ വന്ന പോളി ആണ് അവിടെ പോളീൻ്റെ മുമ്പിലുണ്ട് ഞാൻ പോളിടെക്നിക് കോളേജ് എസ് സ്റ്റീൽ ആണോ ഓക്കെ ഓക്കെ എന്നാൽ പിന്നെ നിങ്ങൾ യു ടേൺ എടുത്തോളി

അ ആ ഇതേ നമ്പറിൽ വിളിച്ചാൽ മതി ഇതേ നമ്പറിൽ വിളിച്ചാൽ മതി ആ അത് നേരത്തെ കണക്ഷൻ ലോസ്റ്റ് ആയി പോയതാ അതുകൊണ്ടു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു അതാ ആ ഓക്കെ ഓക്കേ ട്രാഫിക് ട്രാഫിക് ഇപ്പോൾ ഇവിടേ കുഴപ്പമൊന്നും കാണുന്നില്ലാ

ഇല്ല ഇല്ല ഇല്ല കുട്ടിയെ അങ്ങനത്തെ പ്രേശ്നങ്ങളൊന്നുമില്ല ആ ഓക്കേ ഓക്കെ അ ആണോ അ എന്നാൽ പിന്നെ നിങ്ങൾ ആ ഓക്കേ ഓക്കേ ഓക്കെ